എസ് ടി ഇ എം ൻ്റെ സഹായത്തോടെ എൻ്റെ പ്രദേശത്തെ ആരോഗ്യപരിപാലനം വളരെ നല്ല രീതിയില് തന്നെയാണ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് മരുന്നും അത്യാവശ്യത്തിനുള്ള ആരോഗ്യ ഉപകരണങ്ങൾ എല്ലാം അവര് എത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടില് ചെറിയൊരു പ്രാഥമി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ട് അവിടേക്കുള്ള ആവശ്യമായ മരുന്നുകൾ എല്ലാം കൃത്യ സമയത്ത് തന്നെ പഞ്ചായത്ത് വഴിയും പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്നുള്ള ആൾക്കാർ എത്ത് വന്ന് പരിശോധിച്ചു എല്ലാം മരുന്നുകളും കൃത്യമായി അവിടെ എത്തിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം ടെക്നോളജി ഉപയോഗിച്ച് പറയുകയാണെങ്കില് പ്രദേശത്ത് ആശാ വർക്കറ് ആശാ വർക്കർമാര് അവരുടെ മെസ്സേജ് പിന്നെ സന്ദേശങ്ങൾ എന്തെങ്കിലും കൈമാറാൻ ഉണ്ടെങ്കില് അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അവര് വാട്സ്ആപ്പ് വഴി ഇട്ട് തരും അത് മാത്രമല്ല ഗർഭിണികളായ സ്ത്രീകൾ ഉണ്ടെങ്കില് മാസാ മാസം വിളിച്ചവര് ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വേണോ അപ്പം അങ്കണവാടിയിലെ ടീച്ചേർസ് ആണെങ്കിലും ആഴ്ചയ്ക്ക് വിളിച്ചിട്ട് അവർ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇതൊക്കെ ടെക്നോളജി വന്നതുകൊണ്ടാണ് പണ്ടൊക്കെ ആണെങ്കില് നമ്മള് അങ്ങോട്ട് പോകണ്ടേ ഇപ്പം ഇവര് ഇങ്ങോട്ട് വന്ന് നമ്മളോട് ചോദിക്കുവാണ് മരുന്ന് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും പിന്നെ മൂന്നോ നാലോ മാസം കൂടുമ്പം ഞങ്ങളുടെ പ്രദേശത്ത് ഒരു പരിശോധന ക്യാമ്പ് വയ്ക്കുന്നുണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് ആയുള്ള ക്യാമ്പ് കണ്ണു പരിശോധന പിന്നെ എല്ലാ വ്യാഴാഴ്ച ബുധനാഴ്ചയും വ്യാഴാഴ്ചയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് ഒരു നേഴ്സിൻ്റെ സാന്നിധ്യത്തില് ഷു പ്രമേഹ പ്രമേഹവും അതുപോലെ രക്തസമ്മർദ്ദവും പരിശോധിക്കുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്ക് രക്തം ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് അവര് സൗജന്യമായി തന്നെ സിസ് നേഴ്സുമാര് നമുക്ക് ചെയ്തു തരുന്നുണ്ട്